ഞങ്ങള് പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മുറ്റത്താണ് ഞങ്ങൾക്ക് ഒരുപാട് പൂവ് ഉള്ള ചെടികളുമൂണ്ട് പൂവില്ലാത്ത ചെടികളുമുണ്ട് ഞങ്ങള് എവിടന്ന് പൂവ് ഉള്ള ചെടി കണ്ടാലും മേടിച്ചിട്ട് വരും എന്റെ ഉമ്മായ്ക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പൂവോള്ള ചെടിയൊക്കെ റോസാപൂവും അങ്ങനെ പത്തുമണി മുല്ല അങ്ങനെ പല ചെടികളും എന്റെ ഉമ്മ എവിടുന്നു കിട്ടിയാലും വാങ്ങിച്ച് വരും ഉമ്മ നല്ലോണം വച്ചിട്ടുണ്ടാക്കും ചെയ്യും നല്ല വെള്ളം വാര്ന്ന് നല്ല രീതിയില് നല്ലോണം പരിപാലിച്ച് കൊണ്ടുനടക്കും അങ്ങനെ ഇപ്പോഴും അങ്ങനെതന്നെ ചെടികളൊരുപാട് ഉണ്ട് ഞങ്ങള് നല്ലോണം വെള്ളം വാര്ന്നിട്ട് നനച്ച് കൊടുത്ത് നല്ലോണം വളമിട്ടൊക്കെ വെച്ച് നല്ല രീതിയില് പരിപാലിക്കുന്നുണ്ട് അപ്പോൾ എവിടുന്നു കിട്ടിയാലും ചെടികള് ഞങ്ങള് വാങ്ങിച്ചിട്ട് വരും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് ചെടികളും മുറ്റത്ത് ചെടികള് പൂ ഉള്ള ചെടികള് നിൽക്കുമ്പോൾ കാണാനും ഭംഗിയാണ് എല്ലാവര്ക്കും ഒരു ഇതാണ് സന്തോഷമാണ് കാണുമ്പള് ചെടികള് കാണുമ്പള് എല്ലാവരും ചോദിക്കാം ചെയ്യും പിന്നെ ഞങ്ങൾക്ക് എവിടുന്നു കിട്ടിയാലും ആരു കിട്ടിയാലും ആര്ക്ക് കിട്ടിയാലും ഞങ്ങളുടെ വീട്ടിലുള്ള ആര്ക്ക് കിട്ടിയാലും ഞങ്ങള് കൊണ്ടുവരും എവിടുന്നും കൊണ്ടുവരും അങ്ങനെ പ്രത്യേച്ച് ഇന്ന സ്ഥലത്ത് നിന്ന് ഒന്നും ഇല്ല ഞ്ഞങ്ങൾക്ക് എവിടുന്നു കിട്ടിയാലും ഞങ്ങള് ചെടികള് കൊണ്ടുവരും കുഴിച്ചിടും ഉണ്ടാക്കും നല്ല വളം ഇട്ടു കൊടുക്കും വെള്ളം വാര്ന്നു കൊടുക്കും നല്ല രീതിയില് നമ്മള് പരിപാലിച്ച് കൊണ്ട് വരും നല്ല വൃത്തിയില് നല്ല ഇതില് പരിപാലിച്ച് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ചെടികൾ ഞങ്ങളുടെ മുറ്റത്ത് ഉണ്ട് അതില് ഏറ്റവും കൂടുതലും എനിക്കുമിഷ്ടം റോസാപ്പൂവ് മഴ കൊണ്ട കൊണ്ടാമാതിരി റോസാപ്പൂവും പത്തുമണി മുല്ല അങ്ങനെ പൂവുകളുള്ള ചെടികളാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം അങ്ങനെ ചെടികള് ഞങ്ങള് ഒരുപാട് പൂ ഉള്ളതും പൂവില്ലാത്തതുമൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് വൃത്തിയില് നല്ല വളമെല്ലാം ഇട്ട് നല്ല വൃത്തിയാക്കി നല്ല രീതിയില് നട്ടുവളര്ത്തിയിട്ടുണ്ട്